മൃഗപരി മൃഗപരിപാലന മേഖലകളിൽ സർക്കാർ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് അതെല്ലാം കർഷകർക്ക് വളരെ വളരെ ഉപകാരപ്രദമായ പദ്ധതികളാണ് പിന്നെ പ്രാദേശികമായി നോക്കുകയാണെങ്കിൽ പ്രാദേശികമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ തുറന്ന പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ മുതലായവ വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് പിന്നെ അതല്ലാതെ സുസ്ഥിര പരിപാലനത്തിനാണെങ്കിൽ പ്രധാനമായും വേസ്റ്റ് മാനേജ്മെൻറ് ആണ് ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് അതായത് ഒരു വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന മാലിന്യം അല്ലെങ്കിൽ പാഴ്വസ്തുക്കൾ മറ്റൊരു വിഭാഗത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതിൻറെ ഏറ്റവും നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് സർക്കാർ കുറച്ചുകൂടി നല്ല നല്ല പദ്ധതികൾ മൃഗപരി പരിപാലനത്തിനും മൃഗപരിപാലനം നടത്തുന്ന കർഷകർക്കും വേണ്ടി കൊണ്ടുവരണം എന്നതാണ്

മൃഗപരിപാലനം ഏറ്റവും മികച്ച നിലയിൽ കൊണ്ടുപോകുന്നത് അതിൽ നിന്നുള്ള ആദായം മെച്ചപ്പെടുത്തുന്ന മെച്ചപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെയും ആണ്